എനിക്ക് ഏറ്റവും കൂടുതല് വളർത്താൻ ഇഷ്ടമുള്ള ചെടികള് ഏതാണെന്ന് ചോദിച്ചാല് ഇലച്ചെടികളുണ്ട് ഇപ്പം ഒരുപാട് വെറൈറ്റി ഇലകള് ഇപ്പോൾ ചില വീടുകളിലൊക്കെ കാണാം മഞ്ഞക്കളറ് പിന്നെ മതിലുകളിലൊക്കെ ചെറിയ ചെറിയ ഒരു ബുഷ് പോലുള്ളൊരു ചെടികള് ഇപ്പം വരുന്നുണ്ട് പിന്നെ ചെറിയ ഒരു വെള്ളക്കളറ് പൂക്കളൊള്ളൊരു ഒരു ഒരു ബോള് പോലെ റൗണ്ടായിട്ട് വെട്ടിക്ക വെട്ടീട്ട് റൗണ്ടായിട്ട്ള്ള ചില വീടുകളിലൊക്കെ മുന്നിലൊക്കെ കാണാം അതുപോലുള്ള ചെടികളൊക്കെ എനക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പൂക്കളെന്ന് പറയുമ്പോൾ ഇപ്പോൾ കളർ പൂക്കളുണ്ടല്ലോ ഇപ്പോൾ ഒരുപാട് കളറുകളിലുള്ള ഓറഞ്ചുണ്ട് അതിൻ്റെ റോസുണ്ട് വെള്ളയുണ്ട് അങ്ങനെ ഒരു ഒരുപാട് കളറുകളുള്ള വ്യത്യസ്ത കളറുകളിലുള്ള കടലാസ് പൂക്കള് അതൊക്കെ വീടുകളില് വെച്ച് കാണാൻ ഭയങ്കര രസമാണ് അപ്പം ഇതൊന്നും എൻ്റെ വീട്ടിലില്ല അതിനി എനിക്ക് വെക്കണമെന്ന് ആഗ്രഹമുള്ള പൂക്കളാണ് അതൊക്കെ പിന്നതുപോലെ വലിയ ഇപ്പോൾ പന പോലുള്ളൊരു മരങ്ങളുണ്ട് വലുതല്ല അതിൻ്റെ കറക്റ്റ് പേരെനിക്ക് അറിയില്ല ആ ഇപ്പോൾ ഒരു തെങ്ങ് പോലെ പക്ഷെ കായും അതൊന്നും ഉണ്ടാവില്ല പക്ഷെ അത് വളർന്നിട്ട് അതിൻ്റെ ഇലയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് വീടുകളുടെ മുന്നിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലുള്ള പൂക്കളാണ് എനിക്കിഷ്ട്ടം